ഹലോ ഹോട്ടൽ അല്ലേ ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നേരമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല അതെന്താണ് ഇത്ര ഡിലേ ആവുന്നത് ഫുഡ് കുറച്ച് നേരമായി വിളിച്ച് പറഞ്ഞിട്ട് ആ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ നേരമായി വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് നേരമായി വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് ഫുഡ് എത്തിയിട്ടില്ല അതെന്താണ് ഇങ്ങനെ ഡിലേ ആവുന്നത് ഫുഡ് ആ ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ഔട്ടിങ്ങിനൊക്കെ പോവാനുണ്ടായിരുന്നു അതുകൊണ്ട് അത് താമസിക്കാതെ ഞങ്ങൾക്ക് കൊണ്ട് തരണം ഇങ്ങനെ ഡിലേ ആവരുത് ആ ഞങ്ങളവിടെ ഇവിടെ പുൽപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് ആ ഞങ്ങൾ കുറച്ച് നേരമായി വിളിച്ചിട്ട് പക്ഷേ ഫുഡ് പറഞ്ഞിട്ട് കുറച്ച് നേരമായി ബട്ട് ഫുഡ് ഇതുവരെ വന്നിട്ടില്ല ഭയങ്കര ഡിലെ ആണ് ടൈം ഭയങ്കര ഡിലെ ആയിട്ടുണ്ട് ആ അതെ അതെ ആ അത് മാക്സിമം വേഗത്തിലെത്തിക്കാൻ നോക്കണം ആ ഓക്കെ ആ വേഗം ഒന്ന് എത്തിക്കാൻ നോ നോക്കണേ ഞങ്ങൾക്ക് അത് ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പുറത്ത് പോവാനായിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാനുണ്ടായിരുന്നു പറഞ്ഞിട്ട് കുറച്ചു നേരമായി ആ ഓക്കെ വേഗം എത്തിക്കാൻ നോക്ക് ആ ശരി